ഞാന് വായിച്ചിട്ടുള്ള പുസ്തകമെന്നു പറയുന്നത് ഏ പീ ജെ അബ്ദുള്ക്കലാമിന്റെ അഗ്നിച്ചിറകുകളെന്നു പറയുന്ന പുസ്തകമാണ് ആ ഒരു ബുക്ക് മാത്രമെ എനിക്ക് പം വായിക്കാന് അത്രയും ഇന്ട്രസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൂ ആന് ഏ പീ ജെ അബ്ദുള്ക്കലാമിന്റെ ഡ്രീംസിനെക്കുറിച്ചുള്ള ബുക്ക് അതും ഞാന് നോക്കി വായിച്ചിട്ടുണ്ട് കാര്യം എന്നെ ഒതികം സ്വാ അധികം സ്വാധീനിച്ച ഒരു വ്യക്തിത്വം എന്നു പറയാണെങ്കില് ഏ പീ ജെ അബ്ദുള്ക്കലാമാണ് അ അദ്ദേഹത്തിനെത്രതന്നെ നോളജ് അധികമായിട്ടുള്ള വ് വിവരവും അറിവുകളൊ ഉണ്ടെങ്കില്ത്തന്നെയും അതൊന്ന് അതിന്റെ ഒരഹങ്കാരമൊ അല്ലെങ്കിൽ അതിന്റെയൊരു തലക്കനമോ ഒന്നുമില്ലാതെ വളരെ എളിമയോടു കൂടി കുട്ടികളായ് കുട്ടികളോടായാലും മുതിര്ന്നവരോടായാലും ഒരുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായതു കൊണ്ടും അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പുതുതലമുറയ്ക്കും പുതുതലമുറയ്ക്കും പഴയ തലമുറക്കും ഒരുപോലെ ഉത്തേജനം നല്കുന്നതായതു കൊണ്ടുമാണ് നോബല് പ്രൈസ് അല്ലെങ്കില് ബു ബുക്കറല്ലെങ്കില് ജ്ഞാനപീഠം മുതലായവക കിട്ടിയ എഴുത്തുകാരില് തേടി വായിക്കാറുണ്ടോ എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഞാനേറ്റവും കൂടുതല് അധികം ആകൃഷ്ടയായി വായിച്ചിട്ടുള്ളത് ഏ പി ജെ അബ്ദുള്ക്കലാമിന്റെ കൃതികളായിരിക്കും